എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മംഗളകരമായ സംഭവം പ്രാർത്ഥനയോടെയാണ് തുടങ്ങിയത് പ്രാർത്ഥനയും ബന്ധുക്കളെയൊക്കെ വിളിച്ചുകൂട്ടി എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെയാണ് ഈ മംഗളകരമായ സംഭവമെല്ലാം തുടങ്ങുന്നത് പിന്നെ പാട്ടും നൃത്തവും മറ്റ് ഭക്ഷണ വിഭവങ്ങൾ ഒക്കെ ഒരുക്കിയ എല്ലാ ബന്ധുക്കളെയും ഒരുമിച്ചുകൂട്ടി ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ അഭ്യുദ്ധയകാംക്ഷികളും ആയിട്ടുള്ള എല്ലാവരും ഒത്തുചേരുന്ന നിമിഷം വളരെ സന്തോഷപ്രദമാണ് ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് തുടങ്ങിയത് ചിലർ പ്രാർത്ഥനയോടെ തുടങ്ങുന്നു ചിലർ പാട്ടും ഡാൻസും ആയിട്ട് തുടങ്ങുന്നു മറ്റു ചിലർ ബാക്കി വർത്തമാനങ്ങളും ബാക്കി വിശേഷങ്ങൾ ഒക്കെ പറഞ്ഞു തുടങ്ങുന്നു അങ്ങനെ പല രീതിയിലാണ് പല ബന്ധുക്കളും തുടങ്ങുന്നത് പക്ഷേ എല്ലാവരും ഒരുമിച്ച് ചേരുന്ന ഒരു അനുഭവം വളരെ വലുതാണ് എല്ലാവരെയും കുറേ നാൾ കൂടി കാണുന്നതിൻ്റെയും ഒക്കെ സന്തോഷവും വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ് ബന്ധുക്കൾ ആരെങ്കിലും വരാതിരുന്നാൽ അവരെ വീഡിയോ കോൾ വിളിക്കുകയും അവരെ എങ്ങനെയുണ്ട് സുഖമാണോ എന്നൊക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ബന്ധങ്ങളുടെ ഒരു ദൃഢത വർദ്ധിപ്പിക്കുന്നു